കുടുംബത്തിലെ തന്നെ ഞങ്ങൾ ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞ് ഇതായി കഴിഞ്ഞാൽ രണ്ടാൾക്കും ജോലി ഉണ്ട് എന്ന് വച്ചാൽ ജോലിക്ക് പോകാനാകുമ്പം രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ അന്നേരം തന്നെ നമ്മൾ രൺ അന്നേരം തന്നെ നമ്മളിപ്പം വീട്ടിൽ ചായ വേണം ഉച്ചക്കേത്തേക്ക് ഭക്ഷണം വേണം അലക്ക് അലക്കാനുണ്ട് ഇതെല്ലാം ആകുമ്പോൾ രണ്ട് പേരും ഒരേ സമയത്ത് തന്നെ എഴുന്നേറ്റ് അന്നേരം തന്നെ തുടങ്ങും ചായയുടെ പരിപാടി കുളിക്കാനുള്ള പരിപാടി പല്ല് എല്ലാം രാവിലെ ഒരേ പോലെ രണ്ടാളും ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ സമയത്ത് തന്നെ ഒരേ സമയത്ത് എഴുന്നേൽക്കും ഒരേ പോലെ ചെയ്യും മുമ്പേ എങ്ങനെ എന്ന് വച്ചെങ്കിൽ ഭർത്താവ് മാത്രം ജോലിക്ക് വരും ഭാര്യ വീട്ടിൽ ചോറും കറിയും വയ്ക്കലും അലക്കൽ കന്നുകാലിനെ നോക്കൽ അങ്ങനെ ഇപ്പം അതല്ല ഇപ്പം മാറ്റം വന്നില്ലേ ഇപ്പം സ്ത്രീക്കും പുരുഷനും ഒരേ ഇതാണ് രണ്ടാളും ജോലി ചെയ്യുന്നതല്ലേ രണ്ടാളും ഒരേ ടൈമിന് വരുന്നു വൈകുന്നേരം വന്ന് കഴിഞ്ഞാലും തുടങ്ങി പണി അടുത്ത പരിപാടി രാത്രിയിലത്തേക്ക് ഉള്ളത് ഉച്ചക്കത്തേ രാവിലെ ഉണ്ടാക്കണം പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് വേണ്ടതും ആക്കിയിട്ട് വയ്ക്കുന്നുണ്ട് രാവിലെ തന്നെ അവർ വന്ന് കഴിച്ചോളും ആ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ജോലിക്ക് വച്ചാൽ ആളെ വച്ചിട്ട് ചെയ്താൽ അത് ശരിയാവൂല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് എന്നല്ല ജോലിക്ക് ആളെ വച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ ജോലി നമ്മൾ എടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത് രാവിലെ രണ്ട് അതിരാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റാൽ മതി രണ്ട് പേരും ഒരേ സമയത്ത് എഴുന്നേറ്റാൽ എല്ലാ ജോലിയും ചെയ്ത് വാഹനമുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല വാഹനത്തിൽ രണ്ടാളും പോവാലോ ജോലിക്ക് രണ്ട് സ്ഥലത്ത് ഭാര്യേനെ ആദ്യം കൊണ്ട് ഇറക്കിയിട്ട് ഭർത്താവിന് ജോലിയ്ക്ക് പോവാലോ രണ്ടാളും ഒരേ സ്ഥാപനത്തിൽ പ്രശ്നമില്ല അല്ല കൂലി പണിക്ക് പോകുന്ന കൂലിപ്പണിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇത് രാവിലെ ഭാര്യ ചായ ഒക്കെ കുടിച്ചാൽ അന്നേരം കൊടുത്താൽ ഭർത്താവ് ജോലിയ്ക്ക് പോയി വന്നു വൈകുന്നേരം വരുമ്പോൾ സാധനം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരും എന്തെല്ലാം സാധനങ്ങളെല്ലാം വേണമെന്ന് വച്ചാൽ അതെല്ലാം വാങ്ങിയി ട്ട് വരും പിന്നെ ഇവർക്ക് വീട്ട് ജോലി തന്നെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയായിട്ട് അങ്ങനെ ആയാൽ ജോലി ഉണ്ടങ്കിൽ രണ്ടാൾക്കും ജോലി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല വൈകുന്നേരം ഒരു എട്ട് മണിയാവുള്ളല്ലോ ജോലി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിൻ്റെ വീട്ടിൻ്റേതായ പിന്നെ ഓഫീസിൻ്റെ ചില്ലറ ജോലി വീട്ടിൽ തന്നെ ഉണ്ടാവും ചെയ്യാൻ കൊണ്ട് വന്നത് അതും ചെയ്ത് ഒമ്പത് മണിയകുമ്പം എന്തായാലും കിടന്ന് ഉറങ്ങാല്ലോ പിന്നെ പടം ടി വി എല്ലാം അങ്ങനെ പത്ത് പതിനൊന്ന് മണി വരെ ടി വി നോക്കും പിന്നെ രാവിലെ ജോലിക്ക് പോകണ്ടതല്ലേ രാവിലെ ജോലിയ്ക്ക് പോണ അഞ്ച് മണിക്ക് എഴുന്നേൽക്കണമല്ലോ ശനിയാഴ്ച വൈകുന്നേരം ഞാൻ കുറച്ച് കൂടുതൽ കിടക്കും ഞായറാഴ്ച ലീവല്ലേ ഞായറാഴ്ച ഒരു ഏഴ് മണിവരെ കിടക്കും പക്ഷേ ആരും കിടക്കലില്ല എന്താണെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് ഞായറാഴ്ച അന്ന് പ്രത്യേകത ഒന്നും ഇല്ല അന്ന് കല്യാണം ഉണ്ടാകും അന്ന് എന്തായാലും പാർട്ടി ഇല്ലാതിരിക്കില്ല എന്തെങ്കിലും ഒരു ഇതുണ്ടാകും ഞായറാഴ്ച ലീവല്ലെ എന്ന് വച്ചിട്ട് ഞായറാഴ്ച ആ ദിവസത്തേക്ക് ഒരു പരിപാടി എന്തായാലും ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നാലും എല്ലാവരും കൂടി ഒന്നിച്ചൊരു പോക്ക് ഒന്നിച്ച് കൂടി വീട്ടിലെത്താൻ സമയമുണ്ടാകില്ല രാത്രിയെല്ലാം അച്ഛനും മക്കളും എല്ലാം കൂടി ഒന്നിച്ചിട്ട് അമ്മയും എല്ലാവരും ഒന്നിച്ച് കൂടുന്നത് രാത്രി മാത്രം രാവിലെ അവരഅവർക്ക് അവരവരുടേതായ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട തിരക്കായി അമ്മയ്ക്കും അച്ഛനും ജോലിക്ക് പോകണ്ട തിരക്കായി വീട്ടിലെ കാര്യം ചെയ്യാൻ ബാക്കിയെല്ലാം വേണം ബാക്കിയെല്ലാ പരിപാടിയും ചെയ്യണമല്ലോ സർവ്വ പരിപാടിയും രാവിലെ കഴിയണമല്ലോ ഉച്ചക്ക് ആരും ഉണ്ടാവില്ല ആരും വിശ്വസിച്ച് വീട്ടിൽ നിർത്താൻ പറ്റില്ല ഒന്നാമത് അതാണ് ഒരു വീടാകുമ്പോൾ വിശ്വസിച്ച് നിൽക്കണമെങ്കിൽ ആരാ ഏത് ആളാണ് ആധാരം അത് പണയം വച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ പണിക്ക് ആളെ നിർത്തിയിട്ട് എന്ത് ഏത് മാതിരിയൊന്നും വിശ്വസിക്കാൻ പറ്റലില്ല അതാണ് ഒന്നാമത്തെ മെയിൻ പ്രശ്നം ഉണ്ട് നിർത്തുന്ന നിർത്തുന്ന ആളൂണ്ട് ജോലിക്ക് ജോലിക്ക് ആളെ നിർത്തുന്ന ആളുണ്ട് അത് ഇപ്പം സ്റ്റാർട്ടിങ്ങ് തന്നെ പത്ത് പാഞ്ചായിരം റുപ്യാ പാഞ്ചായിരം റുപ്യാ കുറഞ്ഞിട്ട് പറ്റൂല അവരെ ചിലവും ഡ്രസ്സും ഇതും എല്ലാം ഇത് വീട്ടിൽ കാവൽ കുട്ടികൽ വരുമ്പാന്ന് ഇതാക്കൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ വേറെ എന്താണ് ഉള്ളത് രാവിലെ വയ്ക്കണ്ടത് വച്ച് തന്നിട്ട് ആയാൽ എന്താണ് പണി ഉള്ളത് ടി വി നോക്കുന്നതല്ലേ അലക്കാൻ മെഷീനുണ്ട് സർവ്വ സാധനത്തിനും ഇപ്പം ഇതാക്കണ്ട അരക്കാൻ ഉണ്ട് മെഷീൻ ഉണ്ട് അലക്കാൻ മെഷീൻ ഉണ്ട് എല്ലാറ്റിനും ഇതുണ്ട് വെള്ളം കോരണ്ട സ്വിച്ചിട്ടാൽ മതി മോട്ടർ വർക്കാണ് പിന്നെ വേറെ ചിലവ് എന്തില്ല ഇത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തു മണി ആകുമ്പോഴേക്ക് പണി കഴിഞ്ഞാൽ പിന്നെ ടി വി നോക്കുന്ന പണി പിന്നെ വീട്ടുകാർ വരുമ്പോൾ വൈകുന്നേരം അഞ്ച് മണിയാകുന്നില്ലേ അഞ്ച് മണിയാകും ആറ് ഏഴ് മണിയാകുമ്പം അഞ്ചര ആറ് മണിയാകും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പം തന്നെ അഞ്ച് മണി ഈ അഞ്ച് മണിക്ക് അവർ വന്നാൽ അവർ വല്ലതും കഴിച്ച് അവർ പഠിക്കാനില്ലേ അവർ അവരെ പാട്ടിന് അവരവരെ റൂമിൽ പോയി അവിടെ ഇരുന്ന് അവരെ പണി നോക്കി കൊണ്ടിരിക്കും അവരെ അവർ ഉണ്ടാവും വേറെ ഒന്നും പണിയില്ലല്ലോ അപ്പോൾ പിന്നെ അവർ വരണ സന്ധ്യാ ദീപം വയ്ക്കാനാകുമ്പോൾ പിള്ളേറ് വരും പിന്ന അവർ ബുക്കിൻ്റെ ആടുത്തേക്കന്നെ പോയില്ലേ പിന്നെ കുറച്ച് സമയം ടി വി നോക്കും അവർ അച്ഛൻ അമ്മയെല്ലാം വന്നതല്ലേ എന്ന് വച്ചിട്ടാകുമ്പം കുറച്ചു സമയമുണ്ടാകും അതും വിളിച്ചെങ്കിൽ മാത്രം അവർ സർവ്വതും മൊബൈലിൽ ഉണ്ട് സർവ്വതും മൊബൈല് കിട്ടുന്നുണ്ട് അവരെ റൂമിൽ നിന്ന് തന്നെ അവർ അവരെ റൂമിൽ നിന്ന് തന്നെ ശരിയായിക്കോളും ഇങ്ങോട്ട് പുറത്തേക്ക് വരണ്ട ആവശ്യം ഇല്ലല്ലോ ഇപ്പോൾ ഈ അച്ഛനും അമ്മക്കും കാണാൻ വേണ്ടിയിട്ടല്ലേ ടി വി പിന്നെ ആരെങ്കിലും പുറമെ നിന്ന് വന്നെങ്കിൽ അവർക്ക് ടി വിടെ മുൻപിലിരിക്കും നമ്മൾക്ക് ടി വി തുറക്കാൻ ടൈംമ് വേണ്ടേ അത് തന്നെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ദീപാരാധനയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം നോക്കും ആ വാർത്തയും കാര്യമെല്ലാം നമ്മൾക്ക് ഉറക്കം വരുന്നില്ലേ പിന്നെ കിടന്നു രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ കിടക്കും എപ്പോഴും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കുകയും ചെയ്യും അങ്ങനെയാണ് പിന്ന ആരെങ്ങും പുറമേ നിന്ന് ആരും ഉണ്ടാവില്ല ഞായറാഴ്ച്ച വരുന്നവരെല്ലാം ഞായറാഴ്ച്ച ഞായറാഴ്ച്ച കല്യാണവും കാര്യമെല്ലാം ഉണ്ടാകും ഞായറാഴ്ച്ച കല്യാണത്തിന് ആൾക്കാർ പുറമേ നിന്ന് വരുന്നുള്ളു മറ്റേ ദിവസം ആൾ ഉണ്ടകില്ലെന്ന് വച്ചിട്ട് അവർ പ്രയമായി കഴിഞ്ഞാൽ പിന്നെ അവരെ കാര്യത്തിന് അവർ പോകും